മലയാളഭാഷ നമ്മുടെ അമ്മയാണ് അമ്മയെ തിരിച്ചറിയാനും അതുപോലെ സംസാരിക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന മലയാള ഭാഷയാണ് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ട് നമ്മുടെ നമ്മൾ എവിടെ ചെന്നാലും മലയാളികളെ കാണുമ്പോൾ അവരോട് സംസാരിക്കാനും അവരോട് ഇടപെടാനും നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് മലയാള ഭാഷയാണ് ഏറ്റവും നന്നായിട്ട് ജീവിതത്തെ സ്വാധീനിച്ച് നമ്മുടെ ആശയങ്ങൾ കൈമാറാനും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനും അതുപോലെ അത് എഴുത്തിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ പ്രകടിപ്പിക്കാനും ഒക്കെ ഈ മലയാളഭാഷയാണ് ഏറെ സാധീനിച്ചിട്ടുള്ളത് മലയാളം ജീവിതത്തിൻ്റെ എപ്പോഴും ഒരുപാട് വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും നമ്മുടെ മലയാള മലയാളികളെ മലയാളികൾക്കൊരു നല്ല സംസ്കാരമുണ്ട് മലയാളികളെ കാണുക എന്ന് പറയുന്നതും അതുപോലെ അവരോട് സംസാരിക്കുന്നതും ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഭാഷയുള്ളത് കൊണ്ടാണ് ഈ ആശയങ്ങൾ കൈമാറാനും അതുപോലെത്തന്നെ മറ്റുള്ളവർ ഇടപെടാനും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ഈ ഭാഷയാണ് ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചത് മലയാള ഭാഷ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഉപകരിച്ചപോലെ തന്നെ സൗഹൃദങ്ങളും ബന്ധങ്ങളും പുനസ്ഥാപിക്കാനും അതുപോലെത്തന്നെ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മലയാള ഭാഷയും സംസ്കാരവുമാണ് ഇത്തരം ജീവിതത്തിൽ വളരാനായിട്ട് നമുക്ക് സഹായം ചെയ്ത് തന്നേക്കുന്നതും അപ്പം മലയാള ഭാഷയും സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും ഒക്കെ ഒരുപാട് ഈ മലയാള ഭാഷ സ്വാധീനിച്ചിട്ടുണ്ട്